മലയാളികള് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പൊതുവെ വളരെ സൗഹൃദപരമായിട്ടാണ് സംസാരിക്കുന്നത് എന്നാല് മലയാളം അറിയാത്ത ഐ മീന്സ് മറ്റു ഭാഷക്കാരുമായിട്ട് മലയാളികള് സംസാരിക്കുമ്പോള് അവര് പല രീതിയിലാണ് ആശയവിനിമയം നടത്താറ് ഒന്നെങ്കില് നമ്മളിപ്പം ഏതേലും ഒരു വസ്തു എടുത്തുകാണിക്കുവാണെങ്കില് അവര് വസ്തു വസ്തുവിനെപ്പറ്റി സംസാരിക്കുവാണെങ്കിൽ അതിനെ അതിനെപ്പറ്റി എടുത്ത് കാണിച്ച് ആ വസ്തു എടുത്ത് കാണിച്ച് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും അതിന്റെ വില എന്താണെന്നൊക്കെ ആ പ്രൊ എടുത്ത് കാണിച്ചിട്ട് ആ ഒരു വസ്തു എടുത്ത് കാണിച്ചിട്ട് അവര് ചോദിച്ചു മനസ്സിലാക്കും അതുപോലെതന്നെ ഇപ്പം വേറൊരാളുടെ പേര് എന്തിലെക്കെ അറിയപ്പെടുണെങ്കില് നമ്മള് കൈകൊണ്ട് ആംഗ്യങ്ങൾ കാണിച്ചും അങ്ങനെയൊക്കെയാണ് ഓരോന്ന് അവര് മനസ്സിലാക്കുക ആശയവിനിമയം നടത്തുന്നത് പിന്നെ മറ്റൊരു തരത്തില് പറയുവാണേല് അവര് എഴുതികാണിച്ച് അവരുടേതായ ഭാഷകളില് സാധനങ്ങള് എഴുതി കാണിച്ച് അല്ലെങ്കിൽ മൊബൈലിൽ ഇപ്പത്തെ പുതിയ സംവിധാനങ്ങളായ മൊബൈല് ഫോണ് ഗൂഗിള് ട്രാന്സ്ലേറ്റര് അങ്ങനത്തെ യൂസ് ആ ഉപകരണങ്ങള് യൂസ് ചെയ്തിട്ടും ഇപ്പോള് ആള്ക്കാര് അങ്ങനെ ചെയ്യുന്നുണ്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് എന്റെ ഒരഭിപ്രായത്തില് പറയുവാണെങ്കില് ഇപ്പം കൂടുതല് ആള്ക്കാരും യൂസ് ചെയ്യുന്നത് ഗൂഗിള് ട്രാന്സ്ലേറ്ററ് അങ്ങനത്തെ ഉപകരണങ്ങളാണ് ആള്ക്കാര് കൂടുതല് യൂസ് ചെയ്യുന്നത് ഇപ്പം അവർ മലയാളത്തില് പറഞ്ഞിട്ട് അവരുടേതായ ഭാഷകൾ അത് തര്ജ്ജിമ ചെയ്ത് അവരെ കേൾപ്പിക്കും അങ്ങനെയാണ് മലയാളികള് ഇപ്പോള് കൂടുതലായിട്ടും ആശയവിനിമയം നടത്താന് ശ്രമിക്കുന്നത്